മൊബൈൽ ഗെയിമിങ്ങിനെ പറ്റി പറയുവാനാണെങ്കിൽ ഞാൻ പേഴ്സണലി ഒരുപാട് ഗെയിം കളിച്ചിട്ടുണ്ട് അത് പി സി ആണെങ്കിലും ഫോണിലാണെങ്കിലും ചെറുപ്പം തൊട്ടേ നമ്മൾ കളിക്കുന്ന ഒരു കാര്യമാണ് കീ പാഡ് മൊബൈൽ ഫോണാണെങ്കിലും അതിൽ തൊട്ട് നമ്മള് കളിക്കുന്ന കാര്യമാണ് ഗെയിം അത് ഈ കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് മൈനായിട്ട് ഉണ്ടാക്കിയുള്ളതെങ്കിലും അതിനൊരുപാട് കരിയാറായി തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേര് ഇപ്പഴും നിലവിലുണ്ട് അതായത് കാസ്ട്രോ ഗെയിമിംഗ് ഗെയിമിങ് ഇൻസ്റ്റാ ഗൈമെർ അങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് യൂറ്റുബെഴ്സ് നമുക്കിതിലൂടെ കാണാൻ പറ്റും ഇത് കരിയാറാക്കാൻ പറ്റുക എന്ന് ഉള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ് വളരെ നല്ലൊരു കരിയാറാക്കാൻ പറ്റും പിന്നെ മൊബൈൽ ഗെയിമിംഗ് മൊബൈൽ ഗെയിമിംഗിന് രണ്ട് ദൂഷ്യ ഒരു ദൂഷ്യ വശവും ഒരുപാട് നല്ല വശങ്ങളുമുണ്ട് ദൂഷ്യവശം എന്താണെന്ന് വച്ചാല് ഇതൊരു അഡിക്റ്റിവായിട്ടുള്ള ഗെയിമാകാൻ സാധ്യത ഉണ്ട് പിന്നെ ഒരു മറ്റുള്ള ഒരു ദൂഷ്യവശം ചില ഗെയിമുകൾ പണം മുടക്കി സ്വന്തമാക്കുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുള്ള ഗെയിമുകളും ഈ ലോകത്ത് നിലവിലുണ്ട് ഒരുപാട് ഗെയിമുകളുണ്ട് ഇപ്പം ഏകദേശം മൊത്തം ഗെയിം ഏകദേശം അതെ രീതിയിലാണ് അതും അവരുടെ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള വകുപ്പാണെങ്കിൽ പോലും ചില കുട്ടികൾ അറിയാതെ ഇതിൽ പണം മുടക്കി പെട്ട് പോകാറുണ്ട് പക്ഷെ നല്ല വശങ്ങൾ എന്താന്ന് വച്ചാൽ ഇത് വലിയൊരു സ്ട്രെസ് റീലീസ്മെന്റാണ് ഇപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെയുള്ളവർക്ക് വളരെ സ്ട്രെസ്സ്കളൊക്കെയുള്ള ഗെയിമ് കളിച്ചാൽ റിലീസ് ചെയ്യിക്കാൻ പറ്റും പിന്നെ ഇതൊരു കരിയറായി തെരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ബെസ്ററ് ഓപ്ഷനാണ് പേഴ്സണലി ഞാൻ ഫ്രീ ഫയറും പബ്ജി പെസ് ഈ മൂന്നു പ്ലാറ്റുഫോമിലിപ്പോൾ വളരെ വളരെ നല്ല കരിയർ ഡെവലപ്പേഴ്സിനെ കാണാൻ പറ്റും കരിയർ ഡെവലപ്പാക്കി എടുത്താൽ മാസം മാസം ലക്ഷങ്ങളോളം സാലറി വാങ്ങുന്ന ആൾക്കാരെ കാണാൻ പറ്റും ഈ ഫ്രീ ഫയറിനെ പറ്റിയാണ് ഞാൻ കൂടുതലായി പറയാൻ പോകുന്നത് കാരണം ഞാൻ പേർസണലായി ഒരുപാട് കാലം കളിച്ചൊരു ഗെയിമാണ് ഫ്രീ ഫയർ ഫ്രീ ഫയർ ഗരീന എന്ന ഒരു കമ്പനിയുടെ ഗെയിമാണ് ഇതൊരു ബാറ്റിൽ ഫേസ് ഗെയിമാണ് ഇതിലും ഞാൻ പറഞ്ഞത് പോലെ പൈസ മുടക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷെ അത് ശ്രദ്ധിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ പണി പാളുന്നതാണ് പിന്നെ ഈ ഗെയിമിങ് ഫീൽഡിനെ പറ്റി പറയുവാനാണെങ്കിൽ ഈ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ കൊറോണ സമയത്ത് തന്നെയാണ് ആ സമയത്താണ് ഒരുപാട് ഗെയിമുകൾ നിലവിൽ വന്നത് പലരും അഡിക്റ്റായി മാറിയിട്ടുണ്ടങ്ങനെ കുറെ പ്രശ്നങ്ങളും ഞങ്ങൾക്കങ്ങനെ വന്നിട്ടുണ്ട് ഈ ഗെയിമിങ്ങുകളും ഈ ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞത് പോലെ തന്നെ ഈ കരിയർ ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് ലോകത്തെ കാണിച്ചു കൊടുത്തത് പലരും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗെയിം കളിച്ചാലും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല അവര് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് ഗെയിമിങ്ങിലൂടെ ലോകം അറിയപ്പെട്ടു പല രാജ്യങ്ങളിലും പോകാൻ പോകാൻ പറ്റി ഗരീന സ്വന്തമായി വിളിച്ച് കോളാബ് ചെയ്തു അതുപോലെ തന്നെ പബ്ജിയിലാണെങ്കിൽ കാസ്ട്രോ ഗെയിമിങ്ങിനെ വിളിച്ച് കോളാബ് ചെയ്തു അങ്ങനെ കുറെ ഏറെ കാര്യങ്ങള് ഇതിലൂടെ സാധിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് അതൊക്കെ ഒരു റോ അവരൊക്ക റോൾ മോഡലാക്കിയെടുത്ത് ഇത് ഒരു സീരിയസ് കരിയറാക്കി മുന്നോട്ട് പോകാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവരെ സപ്പോർട്ട് ചെയ്യത്തെ ഉള്ളൂ അവരുടെ കഴിവ് ചിലപ്പോൾ ഗെയിമിങ്ങിലായിരിക്കാം ചിലപ്പം സ്റ്റഡീസിലായിരിക്കാം എന്തിലാണെങ്കിലും വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഗെയിമിങ് അതേപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാകും അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഗെയിമിനെ പറ്റി പറയുവാണെങ്കിൽ വലിയവരും ഇപ്പോൾ ഗെയമിങ് കളിച്ചു തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതായത് ക്യാന്റി ക്രഷ് ഗെയിംസാണ് മുതിർന്നവരുടെ മെയ്നായിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത്

ഈ സ്ട്രെസ് റിലീസ്മെന്റിന് വേണ്ടിയാണ് അവർ ഈ ഈ ഗെയിം കളിക്കുന്നത് പിന്നെ ഈ വയസായാവര് നേരം പോക്കിന് വേണ്ടിയിട്ടും ഈ ഗെയിമിങ് ഈ ഗെയ്മൊക്കെ കളിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ കാന്റി ക്രഷ് കളിക്കാറുണ്ട് അനിയത്തി ക്യാന്റി ക്രഷ് കളിക്കാറുണ്ട് പക്ഷെ നമ്മള് മെയ്നായിട്ടൊരു കരിയർ ഡെവലപ്പ്മെന്റിനു വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അത്യാവശ്യം പബ്ലിസിറ്റിയുള്ളൊരു ഗെയിമ് തന്നെ കളിച്ച് തുടങ്ങേണ്ടതാണ് ഞാൻ പേഴ്സണലി ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമിങ് യൂട്യൂബ് ചാനൽ ബട്ട് അൺഎക്സ്പെക്ടഡ്ലി അത് ലോസ്സ് ആയിപ്പോയി ബട്ട് ബട്ട് ആൾസോ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ലോകം ഒരു നാൾ തിരിച്ചറിയുകയും നമ്മളെ ഉന്നതിയിലെത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മളതിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രം ഗെയിമിങ്ങിനെ പറ്റി എനിക്കിത്രയും ഒക്കെ തന്നെ പറയാനുള്ളു താങ്ക്യൂ